ആ പറഞ്ഞോളൂ നമുക്ക് ഇപ്പം ട്രഡീഷണൽ ആയിട്ട് വരുന്നത് മീൽസും കപ്പ ബീഫ് ഫിഷ് അങ്ങനെ ഒക്കെയാണ് വരുന്നത് ഫിഷ് നമുക്ക് അയല മത്തി പിന്നെ കിളിമീൻ അങ്ങനത്തെ നത്തൽ അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെയാണ് കൂടുതലും വരുക നമുക്ക് ഇപ്പം ഫുഡ് ഐറ്റംസ് ഇപ്പം നോൺ വെജ് ആണെങ്കിൽ വെജിറ്റബിൾ കറിയും പൊറോട്ട അങ്ങനത്തെ ഫുഡ് ഒക്കെ വരുന്നുണ്ട് അപ്പം വെജിറ്റബിൾ സ്റ്റൂ അങ്ങനത്തെ കറി ഒക്കെയാണ് കൂടുതലായിട്ടും വരുക അതിനിപ്പം ബഡ്ജറ്റ് ഇപ്പം നമുക്ക് മീൽസ് ഒക്കെ ആണെങ്കിൽ ഒരു സെവൻറി റുപ്പീസിനൊക്കെ ചെയ്തുതരാം പിന്നെ കപ്പയും ബീഫ് ഒക്കെ ആണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ വരും ബൾക്ക് ആ എത്ര പേർ ഉണ്ടാവും ഓ അത് കുഴപ്പം ഇല്ല സാർ നിങ്ങൾ വന്നോളൂ നമുക്ക് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുതരാം ആ നമുക്ക് എങ്ങനെയാണ് വന്ന് സ്റ്റേ ഉണ്ടോ സ്റ്റേ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും

എല്ലാം വേണം അല്ലേ ആ ആ ഓക്കെ നിങ്ങൾക്ക് എപ്പം എങ്ങനെയാണ് രാവിലത്തേക്ക് എന്താണ് വേണ്ടത് വെജിറ്റബിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പത്ത് കൂട്ടം ആ ഓക്കെ ഓ ശരി ശരി ചെയ്തുതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്തുതരും അപ്പം നിങ്ങൾ എന്നത്തേക്കാണ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞത് മറ്റന്നാൾ ഓക്കെ നിങ്ങൾ നാളെ ഒന്ന് കൺഫോം ചെയ്തിട്ട് നമ്മളെ വിളിച്ചാൽ മതി ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ താങ്ക് യൂ സാർ